ആ കാർ ഏജൻസി അല്ലെ ആ ഞാൻ ഒരു കാർ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ എനിക്കുള്ളത് മാരുതി ആണ് ആ അതിലും കുറച്ചും കൂടി നല്ല ആ കുറച്ചും കൂടി നല്ലൊരു കാർ വാങ്ങാനാണ് ഇത് കൊടുത്തിട്ട് വേറെ ഒന്ന് വാങ്ങാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ആണ് ഒരു പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ ഉള്ളതു മതി ആ ആ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കുറച്ചുംകൂടി വലിയ വണ്ടി നല്ല സൗകര്യം ഒക്കെ ഉള്ളത് നോർമൽ ടൈപ്പ് ആ അ ഓക്കേ അപ്പോൾ കളർ ഒക്കെ നമുക്ക് ഇഷ്ടം ഉള്ളത് ചൂസ് ചെയ്യില്ലേ ആ പിന്നെ അതേതാണ് വർഷം കമ്പനി ഏത് വർഷത്തെ വണ്ടിയാണ് ഏത് മോഡല് ഫ്രഷാണോ ആ ഓക്കേ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് സെൻറ് ചെയ്തു തരൂമോ ആ ആ ഉണ്ട് ഈ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ ഓക്കേ ഓക്കേ അതെ അതെ ഇ എം ഐ ആയിട്ട്

രണ്ടായിരത്തിപ്പതിനേഴ്

ഓക്കെ താങ്ക് യൂ